ഞാൻ ചിത്രം വരയ്ക്കാറുണ്ട് എനിക്കു ചിത്രം വരയ്ക്കാൻ ഭയങ്കര താല്പര്യമുള്ള ഒരു കാര്യമാണ് ഞാൻ ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചിത്രം വരയ്ക്കാറുണ്ട് പിന്നെ അതിൻ്റെ കൂടെത്തന്നെ ഞാൻ വീട്ടിലെ പരിപാടി വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യും മക്കളെ സ്കൂളില് വിടുന്നുണ്ട് ജോലിക്കു പോകുന്നുണ്ട് പിന്നെ എവിടെനിന്നായാലും ടൈം കിട്ടുമ്പോള് ഞാൻ ചിത്രം ഒന്നെങ്കിലും വരയ്ക്കാതിരിക്കില്ല പിന്നെ ചില സമയങ്ങളില് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുണ്ട് എന്നാലും ചിത്രം വരയ്ക്കുന്നത് ഒഴിവാക്കാറില്ല ഇപ്പോള് ബസ്സിൽ പോകുന്ന സമയങ്ങളില് എന്തെല്ലാം കാണുവാണെങ്കിൽ ഞാനത് മനസ്സിൽ ഓർത്ത് മനസ്സിൽ വയ്ക്കും എന്നിട്ട് ഞാൻ ഫ്രീ കിട്ടുന്ന സമയങ്ങളില് അതിൻ്റെ രൂപം വരയ്ക്കും പിന്നാ ഓഫീസില്നിന്നു കണ്ടാലും അല്ലെങ്കില് ജോലി ചെയ്യുന്ന സമയത്ത് എന്തേലും ആരെങ്കിലും കണ്ടാലും നമുക്ക് സ്പെഷ്യലായിട്ട് തോന്നുന്ന എന്തും ഞാൻ മനസ്സില് മനസ്സിലങ്ങു പതിപ്പിക്കും പിന്നെയതു നമുക്കു തോന്നുന്ന സമയങ്ങളിലൊക്കെ ഞാൻ വരയ്ക്കാറാണു ചെയ്യാറ് പിന്നെ കുട്ടികളെ കാര്യം നോക്കണം സ്കൂളില് വിടണം എല്ലാം കഴിയുമ്പോള് കിട്ടുന്ന ടൈമില് ഇപ്പോള് ചിലപ്പോള് രാത്രി ആയിരിക്കും രാത്രി ഉറങ്ങാൻ പോകുന്നതിനുമുന്പു ഞാൻ ഒരു ഒന്നെങ്കിലും എന്തെങ്കിലും കുത്തിക്കുറിച്ചുവരയ്ക്കും അങ്ങനെയാണു ഞാൻ ചെയ്യാറ്